ചിത്ര രചന പോലുള്ള കലകൾ കുട്ടികൾക്ക് ആരംഭിക്കാൻ ഏറ്റവും ചെറിയ പ്രായം തന്നെയാണ് നല്ലത് എന്തോരം ചെറിയ പ്രായമാണോ അത്രയും നല്ലത് കാരണം ഇത്തരം കലകൾ കുട്ടികളുടെ ഭാവനയും ഒക്കെ വികസിപ്പിക്കാൻ വളരെ നല്ല കാര്യമാണ് അപ്പോൾ കുട്ടികൾക്ക് പേനയും പെൻസിലും കൈയിലെടുത്ത് വരയ്ക്കാൻ പറ്റുന്ന പ്രായം തൊട്ടെ അവർ വരക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ചെറിയ നമ്മൾ കാണുന്നത് അനുസരിച്ച് ചെറിയ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ കൈയ്യിൽ കിട്ടുന്ന ക്രയോൺസും പേനയുമൊക്കെ എടുത്ത് അവിടെയും ഇവിടെയും വരയ്ക്കാനുമൊക്ക ശ്രമിക്കും അപ്പോൾ നമ്മൾ അവരെ ചീത്ത പറയുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും വരയ്ക്കാനുള്ള എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും എടുത്ത് കൊടുത്ത് അവരെ അതിൽ വരയ്ക്കാനായിട്ട് പ്രേത്സാഹിപ്പിക്കുക ആണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അവരുടെ ഭാവന അവരുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ അവർ അവർ അവരാൽ കഴിയുന്ന വിധത്തിൽ വരയ്ക്കാൻ നോക്കുന്നതാണ് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഓരോ പ്രായം കഴിയും തോറും അത് അനുസരിച്ച് ഇപ്പോൾ ചിത്രം വരയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട് വരയ്ക്കാൻ നല്ല ഒരു പടം വരയ്ക്കുന്നതിന് മുന്നിൽ അതിൽ ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാം പഠിക്കാനും അത് അനുസരിച്ച് ഒരുപാട് മികച്ച പടങ്ങളൊക്കെ വരച്ചെടുക്കാൻ പറ്റും ഈ ഒരുപാട് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിനായിട്ട് ഒരു കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്ന ഒരു കാര്യമാണ് ഈ ഇതെല്ലാം പിന്നെ നമ്മൾ കുട്ടികൾ പടം വരച്ച് വരുമ്പോൾ നമ്മൾ അവരെ അവരെ പടത്തെ പുകഴ്ത്തുന്നതിനൊപ്പം തന്നെ അവർ ആ പടം വരയ്ക്കാനായിട്ട് ചിലവഴിച്ച സമയവും അവരുടെ ശ്രമത്തെയാണ് നമ്മൾ കുറച്ച് കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങനെ ആണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ അധികം ഗുണം ചെയ്യും